ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം അതായത് കോഴിക്കോടിനെ അപേക്ഷിച്ച് ഇപ്പോൾ ജാതി വർഗ്ഗം വംശം ഭാഷ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും എന്താ പറയുക മതം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും വലിയ പ്രസക്തിയില്ല കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എല്ലാവരും തന്നെ ഒരു ഒറ്റൊരു കെട്ടായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ജീവിക്കുന്നത് അതായത് ആരെയും വേർതിരിച്ചു കാണാതെ എല്ലാവരെയും ഒന്ന് ഒരു ഒറ്റ ഒരു ഇതുപോലെയാണ് എല്ലാവരെയും കാണുന്നത് ഒരു കുടുംബമായിട്ടാണ് കാണുന്നത് പിന്നെ പൊതുവേ പരിചയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സംഗതി എല്ലാം ചെയ്തു കൊടുക്കുന്നവരാണ് കോഴിക്കോട് ജില്ലയിലുള്ളവർ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക കോഴിക്കോടിന് ഒരു നല്ല വികസനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കഴിയുന്നുണ്ട് കാരണം ബിസിനസ്സിലായിക്കോട്ടെ പിന്നെ അല്ലാത്ത എന്ത് കാര്യങ്ങളിലും ആയിക്കോട്ടെ ഇപ്പോൾ ആൾക്കാർ പരസ്പരം എന്താ പറയുക നല്ലൊരു ബന്ധം പുലർത്തുന്നതിനോട് കൂടി ആൾക്കാർക്ക് നല്ല നേ നല്ല നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആളുകൾക്ക് നല്ലൊരു മു മുന്നോട്ടു ജീവിക്കാനും നമ്മുടെ സം ഇപ്പോൾ എന്താ പറയുക നമ്മുടെയൊരു രു കേ കോഴിക്കോടിൻ്റെ അതായത് കേരളത്തിലെ തന്നെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു നല്ലൊരു പ്രചോദനം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും തമ്മിലൊരു പരസ്പരബന്ധം ഉള്ളത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്